ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ എന്ന് ഒക്കെ പറഞ്ഞാൽ കൂടുതലായിട്ട് ഈ കായിക വിനോദങ്ങൾ കളിക്കുന്നതിന് നമ്മുടെ നാട്ടുകാര് കാര്യങ്ങൾ ഒക്കെ എതിരാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഇപ്പം നമ്മൾ ആരും കളിക്കുന്നതോ കാര്യങ്ങൾക്കൊന്നും ചിലർക്ക് ഇഷ്ട്ടപ്പെടാത്ത ചില ചില ആൾക്കാര് നല്ല ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ടും എന്താ പറയുക മോശം അഭിപ്രായം കാണിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പം അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂടുതലായിട്ടും ഇങ്ങനത്തെ കളികളോട് ഒന്നും താല്പര്യമില്ലാത്ത ആളുകളാണ് അപ്പോൾ ഇവര് കൂടുതലായിട്ട് ഇതിനെ എതിർക്കാനും കാര്യങ്ങൾക്ക് ഒക്കെ വേണ്ടിട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ കൂടുതലായിട്ടും ഈ പറമ്പുകള് ഇപ്പം വയല് അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെയാണ് ഇപ്പം എന്താ പറയുക കളിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ വയലിൽ കളിക്കുമ്പോൾ അവർക്കും ഭയങ്കര വിരോധം കാര്യങ്ങൾ ഒക്കെ ഉണ്ട് നമ്മൾ പിള്ളേര് കളിക്കുന്നത് ഒന്നും അവർക്ക് വലിയ താൽപര്യമോ കാര്യങ്ങളോ ഉണ്ടാകില്ല അപ്പോൾ അങ്ങനെ കുറെ അഭിപ്രായ അ ആൾക്കാര് ഒക്കെ ഉണ്ട് പിന്നെ അല്ലാത്ത കുറെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അവരെ കൊണ്ട് നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ടെങ്കിലും എല്ലാവരേയും കൊണ്ട് അങ്ങനെ ലഭിക്കുന്നില്ല കാരണം നമുക്ക് ഭയങ്കര പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഉള്ള സപ്പോർട്ട് കാര്യങ്ങൾ ഒക്കെ ലഭിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളിലും നിന്ന് മുന്നേറാനും എല്ലാ കാര്യങ്ങളിലും ചെയ്യാനും നമുക്ക് പറ്റുകയുള്ളു